ഞാൻ പഠിച്ച സ്കൂളിൽ ലൈബ്രറി ഉണ്ടായിരുന്നു പഠനസമയത്താണ് ഇത് നമ്മൾക്കുള്ള എന്തെങ്കിലും റെഫെർ ചെയ്യാനായിട്ടാണ് പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയാനായിട്ടാണ് ആണെങ്കിലും പുസ്തകത്തിൽ കൂടുതൽ നമ്മളതിനെ കൂടുതൽ അന്വേഷിക്കാറുണ്ടായിരുന്നു ആ ലൈബ്രറിയിൽപ്പോയി പുസ്തകങ്ങൾ കണ്ടുപിടിച്ച് അതു നമ്മൾ നോക്കി അതിൻ്റെ ആശയം മനസ്സിലാക്കുമായിയിരുന്നു അപ്പോൾ അതുതന്നെ അതുതന്നെയല്ല നമുക്ക് ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈബ്രറിയിൽ അവധി കിട്ടുന്ന അവധി സമയം ടൈം കിട്ടുന്ന സമയത്ത് അപ്പോൾ ക്ലാസ്സില്ലാത്ത സമയത്താണെങ്കിലും ഇൻ്റർവെല്ലു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ആ ലൈബ്രറിയിൽ പോയിരുന്നു വായിക്കാറുണ്ടായിരുന്നു നല്ല നല്ല പുസ്തകങ്ങൾ ഇപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ളതും ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ വായിക്കാറുണ്ടായിരുന്നു റൂത്ത് ആ താഹീദ് പിന്നെ നമുക്കവിടെ അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ ബിബ്ലിക്കലായിട്ടുള്ള കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ സത്യാന്വേഷണ കഥകൾ മഹാത്മാഗാന്ധിയുടെ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് നമുക്ക് സ്കൂളിൽ ലൈബ്രറി ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും നമുക്ക് കാണാം നമുക്ക് വായിക്കാൻ പറ്റുന്ന അത്രയും പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു അത് പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തെന്നെ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെ പറഞ്ഞ വേറെ വലിയ വലിയ വലിയ ടെക്സ്റ്റിങ്ങിനൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും നമുക്ക് ഒത്തിരി ഉപകരാമായിട്ടുണ്ടായിരുന്നു കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു ദ ഇന്ത്യൻ ജേണി അങ്ങനത്തെ പുസ്തകങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കൂടുതലറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു